ചേട്ടാ ഞാനേ ഏഹ് ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടാർന്നില്ലേ കൊറച്ചു നേരത്തെ കൊറേ നേരായി ഇവിടെ വെയിറ്റ് ചെയ്യണു ഇപ്പോൾ തന്നെ ഒന്നരമണിക്കൂറോളം ആയി നിങ്ങൾ അരമണിക്കൂറില് വരും പറഞ്ഞപ്പോൾ ഞാൻ അതിനേക്കാളും മുൻപ്എ ഇറങ്ങിയതാണ് ഇനിയിപ്പോൾ നിങ്ങള് വന്നിട്ട് എന്നെ വെയിറ്റെയ്യണ്ട നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിരിക്കും എന്നു പറഞ്ഞിട്ടാണ് ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങിയത് പുറത്തോട്ട് ഇറങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട് സമയം കുറെ ആയി വീട്ടിൽ നിന്ന് കുറച്ചു ദൂരമുണ്ട് പുറത്തോട്ട് ഒരു പത്തഞ്ഞൂറ് മീറ്ററുണ്ട് അപ്പം ഞാൻ പുറത്തു വന്ന് നിക്കാണ് റോ റോഡ് സൈഡ് അപ്പോൾ നിങ്ങളിപ്പോൾ വരും പറഞ്ഞിട്ട് ഇരിക്കാണ് ഇത്ര നേരായിട്ടും കാണാനില്ല നിങ്ങളെവിടെയാ കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറയുമോ എനിക്ക് കറക്റ്റ് ഞാൻ പാലക്കാടിൽ നിന്ന് ചന്ദ്രനഗർക്ക് വരോല്ലോ ചന്ദ്രനഗർ എത്തി ഫസ്റ്റ് റൈറ്റ് ചന്ദ്രനഗർ എത്തി പോയിട്ട് ഫസ്റ്റ് റൈറ്റ് അവിടേണ് ഞാൻ നിക്കണത് ജസ്റ്റ് വേഗോന്ന് വന്നൂ പറഞ്ഞാലാണെനിക്ക് എത്താൻ പാറ്റോള് എനിക്ക് എത്തേണ്ട സമയം കഴിഞ്ഞു ആ സ്ഥലത്തെത്തേണ്ടതേ വേഗോന്ന് വന്നു കഴിഞ്ഞാ പെട്ടെന്ന് പൂവായിരുന്നു